ആ ഓക്കെ പറഞ്ഞോളൂ മാഡം നമുക്കിപ്പം വേണ്ടത് എന്താന്ന് വച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡ് എന്തേലും ഉണ്ടോ ഇങ്ങനെ വെക്കാൻ പ്രൂഫ് ആയിട്ട് ആ നമുക്കിപ്പം എന്തേലും ഒന്ന് ഇവിടെ വെക്കണം അതായത് സ്ഥലത്തിൻ്റെ എന്തേലും സ്ഥലം എന്തെങ്കിലും ഉണ്ടേൽ അതിൻ്റെ പേപ്പേഴ്സോ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രൂഫായിട്ട് കിട്ടണം ആ ഏതേലും സ്ഥലത്തിൻ്റ ആ ഓക്കെ നമുക്കിപ്പം ഉള്ള സ്ഥലത്തിൻ്റെ ഏതിന്റെ എങ്കിലും ഒരു നികുതി ചീട്ടും പ്രൂഫായിട്ട് മതിയാകും നികുതി ചീട്ടായിട്ട് തന്നാൽ മതി ഇല്ല ഇല്ല നിങ്ങൾ ഉള്ള സ്ഥലത്തിൻ്റെ ഏതിൻറ്റേലും കൊണ്ട് വന്നാൽ മതി അതോ നിങ്ങൾക്ക് എങ്ങനെ വലിയ എന്തേലും പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യാനാണോ അതോ ചെറിയ രീതിയിൽ ചെയ്യാനാണോ ആ അതെ അപ്പം നിങ്ങള് ഏകദേശം എത്ര രൂപ വേണ്ടിവരും ഒന്നര ലക്ഷം രൂപ മതിയാവും അല്ലേ ആ ഓക്കെ അപ്പം നിങ്ങള് പറഞ്ഞ മറ്റേ അപ്പം പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതായാലും മതിയാവും അതിൻ്റെ നികുതി ചീട്ടായിട്ട് വന്നാൽ മതി ആ പിന്നെ ആ നികുതി ചീട്ട് എന്തെങ്കിലും വെക്കുവാണെങ്കിൽ നിങ്ങൾ ഗ്യാരൻഡറിനെ വേറെ വെക്കണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പിന്നെ ഇതിന് ഗ്യാരൻഡറിനെ തന്നെ വേണ്ടിവരും അല്ലെങ്കില് ചെക്ക് ലീഫാ അപ്പം സ്ഥലത്തിൻ്റെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങള് നികുതി ചീട്ടും ആധാരത്തിൻ്റെ ഒരു കോപ്പിയും അങ്ങനത്തെ ഇതുമാത്രം മതിയാകും നമുക്ക് പിന്നെ നിങ്ങളുടെ പാൻകാർഡും കൂടെ ഒന്ന് കൊണ്ടു വന്നാൽ മതി ഇനി ആധാർ ആ നാളെ എത്തുവെങ്കിൽ ഓക്കെ നാളെ വന്നാൽ മതി വരുമ്പം ആ ആധാറിൻ്റെ ഇതിലും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക നിങ്ങൾ വേറെ ലോണൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ ആ ഓക്കെ അ അപ്പം വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിനൊക്കെ വന്ന് കയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ട് ഇണ്ടാകും ലോൺ എടുത്താൽ പാസ് ആകാൻ ആ ഓക്കെ ഓക്കെ അപ്പം വലിയ കുഴപ്പം ഉണ്ടാവില്ല നിങ്ങൾ എന്തായാലും നാളെ ഈ പ്രൂഫൊക്കെ ആയിട്ട് വന്നാൽ മതി വേറെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല പിന്നെ ആ ലോണിൻ്റെ പ്രോസസ്സ് നമുക്കിന്ന് ഇപ്പം ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ലോൺ കിട്ടും ആ ഓക്കെ ഓക്കെ അത് നമുക്ക് എന്തെങ്കിലും വെക്കാലോ ആ ഓക്കെ വരുമ്പം എന്തേലും ഐ ഡി പ്രൂഫ് എന്തേലും കൂടെ കൊണ്ടുവരണം കേട്ടോ ആയിക്കോട്ടെ ശരി എന്നാൽ